ബൈക്കിനേക്കാളും കാറിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്തിരുന്നാൽ പോലും ഈയിടെ എനിക്ക് പുതിയൊരു ബൈക്ക് വാങ്ങി തന്നു എൻ്റെ അച്ഛൻ അപ്പോൾ അതു വെച്ച് ഞാൻ എൻ്റെ നാടായ കൊല്ലത്ത് നിന്ന് ഞാൻ പഠിക്കുന്ന സ്ഥലമായ തൃശ്ശൂരേക്ക് ആ ബൈക്കിൽ വന്നു വളരെ നല്ലൊരു യാത്രയായിട്ടായിരുന്നു എനിക്കത് തോന്നിയത് അങ്ങനെ ഞങ്ങൾ തൃശൂരെത്തി ഞാൻ തൃശ്ശൂരെത്തി തൃശൂർ അവിടെ കോളേജിൽ പഠിത്തത്തിനിടയ്ക്ക് അവധി ദിവസം കിട്ടിയപ്പോൾ ഞങ്ങളവിടെനിന്ന് ഒരു യാത്ര പോയി ചിമ്മിനി ഡാമിലേക്കൊരു നല്ലൊരു യാത്ര പോയി ബൈക്കുകളിൽ ഞങ്ങളൊരു അഞ്ചാറ് പേര് ഒരു മൂന്ന് നാല് ബൈക്കിൽ ഒരു നല്ലൊരു യാത്ര പോവാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തീരുമാനിച്ച് ഞങ്ങളങ്ങനെ അന്ന് ഇറങ്ങി അത് ആണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ബൈക്ക് യാത്രയായിട്ട് എനിക്കത് മാറിയത് ഇത്രയും നല്ല റോഡുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് മനസിലാക്കാൻ ആ ഒരു വഴി പോയാൽ ധാരാളമാണ് ഇപ്പോൾ വെളിനാട്ടിലൊക്കെ പോയാൽ തമിഴ്നാട്ടിലോ അവിടെയൊക്കെ പോയാലും നമ്മുടെ കേരളത്തിലെ വളരെ വലിയ പുച്ഛമാണവർക്ക് നമ്മുടെ നാട്ടിൽ നല്ല നല്ല റോഡുകളില്ലാന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പുച്ഛമാണ് നമ്മളെ അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു മുതലാണ് നമ്മുടെ ഈ ചിമ്മിനി ഡാമിലേക്കുള്ള വഴി ഇത്ര മനോഹരമായൊരു വഴി വേറെയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല രണ്ട് സൈഡുകളിലും നല്ല രീതിയിലുള്ള തേയില തോട്ടങ്ങളും പിന്നെ ഡാമും എല്ലാം കണ്ട് ബൈക്കിൽ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് വരാൻ പറ്റും അത്ര നല്ല റോഡാണ് അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതേപോലെ മറ്റൊരു യാത്രയായിരുന്നു ബൈക്കും കൊണ്ട് മൂന്നാർ പോയത് മൂന്നാർ പുതിയൊരു റോഡുണ്ട് ഗ്യാപ് റോഡ് എന്ന് പറഞ്ഞ് പേരുള്ള റോഡ് അതും ഇതേ പോലെ വളരെ മനോഹരമായൊരു യാത്രയാണ് ബൈക്കുകൾ ഉള്ളവർക്ക് പോയി സഞ്ചരിച്ച് വരാൻ വളരെ നല്ലൊരു വഴിയായിട്ടാണത് തോന്നിയത് നല്ല വളവും വളവുകളും തിരിവുകളുമൊക്കെയായിട്ട് കുറേ നേരം നമുക്ക് സ്ഥലം ചെലവഴിക്കാൻ സമയം ചിലവഴിക്കാനായിട്ട് നല്ല പറ്റിയൊരു സ്ഥലമാണ് നല്ല നല്ല വ്യൂ പോയിൻറ്റുകളും ഉണ്ട് നല്ല നല്ല ചായക്കടകളൊക്കെയായിട്ട് പതുക്കെ നമുക്ക് കൂട്ടുകാരൊക്കെയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഈ ഗ്യാപ് റോഡ് തോന്നിയത് എന്നിരുന്നാൽ പോലും ഈ രണ്ട് സ്ഥലങ്ങളും വെച്ച് നോക്കിയാൽ പോലും ചിമ്മിനി ഡാമാണ് ഒന്നുകൂടി ഭേദമായിട്ട് എനിക്ക് തോന്നിയത് കാരണം വഴിക്ക് അധികം വീതിയില്ലെങ്കിൽപോലും ഉള്ള വീതിയുള്ള വഴി നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് റോഡ് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് സോ അവിടെക്കൂടെ ഒരു ബൈക്കോടിച്ച് പോവുമ്പോൾ ഉള്ള ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര രീതിയിൽ അടിപൊളിയാണ് അപ്പോൾ ഒരാൾക്ക് ഇനിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ബൈക്കിൽ ഇതേപോലൊരു യാത്ര പോവാൻ ഞാൻ എത്രയും പെട്ടെന്ന് ചിമ്മിനി ഡാം തന്നെ പോവാൻ സജസ്റ്റ് ചെയ്യും